നൃത്തമൊരു കലയാണ് ആ കലയെ നമ്മളൊരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടുകയില്ല നൃത്തത്തിൽ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന കുറെ നല്ല കാര്യങ്ങളുണ്ട് നമുക്ക് നല്ല സന്തോഷം തരുന്നൊരു സാധനമാണ് നൃത്തം ചവിട്ടൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാത്തത് പോലും ചെയ്യാൻ പറ്റുമെന്ന് നൃത്തത്തിലൂടെ കാണിക്കാൻ പറ്റും കുറെ മനുഷ്യർക്കുള്ള തെറ്റിധാരണയാണ് നൃത്തം ചവിട്ടൽ വലിയ സംഭവ ഒന്നും അല്ലാ അല്ലാ എന്ന് നൃത്തം ചവിട്ടലിലൂടെ തൻ്റെ കഴിവാണ് നൃത്തം ചവിട്ടുന്നയാൾ തെളിയിക്കുന്നത് അത് വളരേ അധികം സന്തോഷം തരുന്നതും വളരേ അധികം അഭിമാനപൂർവമുള്ള ഒരു കാര്യമാണ് സ്വന്തം ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ നൃത്തം ചവിട്ടാൻ വളരെ അധികം സാധിക്കുകയുള്ളു അവർക്കാണ് ഏറ്റവും സ്വന്തം ശരീരത്തിനോടും സ്വന്തം മനസ്സിനോട് സ്നേഹം ഉള്ളവർക്കാണ് നൃത്തം ചവിട്ടാനേറ്റവും സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുക വളരെ അധികം നല്ലതാണ് നൃത്തം ചവിട്ടൽ അതിനെ കുറെ ആൾക്കാര് തെറ്റിദ്ധരിക്കുന്നു